ഹലോ ഏയാർ റെസ്റ്റൊറൻ്റല്ലെ ഞാനൊരു ഫുഡ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരുപാട് ലാഗായിതുവരെ എത്തീട്ടില്ല ഒരൂ ഒരു മണിക്കൂറായി ഞാൻ ഫുഡ് ഓഡർ ചെയ്തിട്ട് ഇതിപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നുവിതുവരെ അറിയാൻ പറ്റീല്ല ഞാനിപ്പം അതറിയാനാണ് വിളിച്ചത് നിങ്ങളിപ്പം എവിടെ നിക്കാണ് അ ഫുഡ്ഡ് കൊണ്ട്വന്നോണ്ടിരിയ്ക്കാണോ അതൊ ഇനീം പ്രിപ്പെയറാവാണോ എന്താണതിൻ്റെ കാര്യങ്ങളൊന്നൊന്നുവറിയാൻ കഴിഞ്ഞില്ലായിരുന്നു നിങ്ങളൈനേപ്പറ്റിയൊന്നും കോണ്ടാക്റ്റ് ചെയ്തതുവില്ല ഞാനാദ്യൊക്കെ വിളിച്ചിട്ടും അനക്കവൊന്നു ഇല്ലായിരുന്നു ഇപ്പം എന്തായി എപ്പോഴത്തേക്ക് കിട്ട്വാരിയ്ക്കും ഞാനിനി ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും വരണോ അത് വേടിക്കാൻ നിങ്ങൾ കൊണ്ട്വരാംന്ന് പറഞ്ഞതാണ് ഇതുവരെ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനക്കെ കറക്റ്റായിട്ട് ലൊക്കേഷൻ മനസ്സിലാകാത്തോണ്ടാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞ് തരാം എത്ര നേരവായി കുറച്ചൂടൊന്ന് സ്പീഡപ്പാക്കാമ്പറ്റ്വോ ഇൻ്റെ കാര്യങ്ങളെങ്ങനാര്ന്ന് എപ്പത്തേയ്ക്കെത്തുവിത് ഇനിയും ഒരുപാട് ലേയ്റ്റാകോ ഇതിനേപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങളൊന്ന് അറി ഒരു അര മുക്കാ മണിക്കൂറിനുള്ളില്ലെങ്കിലുവെത്താൻ പറ്റുമോ എന്തൊരാ എങ്ങനെങ്കിലുവൊരു അര മുക്കാ മണിക്കുറിനുള്ളിൽ കൊണ്ടു വരാൻ നോക്ക് ഐപ്പം ഫുഡ്ഡ് പ്രിപ്പെയറായി കഴിഞ്ഞാൽ കാണുവാരിയ്ക്കൂലോ ഇത്ര ഒരു മണിക്കൂറായീലേ ഞാനോഡ്റ് തന്നിട്ട് ഇനീം ഫുഡ്ഡ് പ്രിപ്പെയറായില്ലാന്ന് പറയുന്നതെങ്ങന പിന്നെ ഒരു മുക്കാ മണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങളെത്തിക്കാൻ നോക്കുക ഞാൻ ലൊക്കേഷൻ മനസ്സിലായില്ലെങ്കിലെന്നെ കോൾ ചെയ്താൽ മതി ഓക്കെ